എനിക്ക് അതായത് എനിക്കൊരു മകൻ ഉണ്ട് അപ്പോൾ അവന് ഞാൻ പാട്ടുപാടി ഉറക്കുന്ന ഏതാണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൻ മടിയിലെ മാന്തളിര് എന്നു പറഞ്ഞൊരു പാട്ടാണ് അത് ഞാൻ കുറച്ച് മൂളാം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായ് മിഴികളിൽ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ ഉറങ്ങൂ നീ ഉറങ്ങൂ ഈ ഗാനമാണ് എൻ്റെ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടം ഉള്ളതും ഞാൻ പാടിയതിൽ എൻ്റെ മകന് എൻ്റെ ഹസ്ബന്റിന് ആണെങ്കിലും കേൾക്കാനും ഏറ്റവും ഇഷ്ടം ഈ പാട്ടാണ് എനിക്കിത് കേൾക്കുമ്പോൾ നല്ലൊരു ഫീൽ ആണ് അതായത് ഞാൻ അങ്ങനെ പാടുകയൊന്നും ഇല്ല പക്ഷേ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേയ്ക്ക് എനിക്ക് അങ്ങനെ പാടാനുള്ളൊരു ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഞാൻ പാടിയത് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ തമിഴ് പാട്ടുകളൊക്കെ ഇഷ്ടമാണ് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇതാണ്